ഹലോ ഒരു മൂന്ന് ദിവസം മുന്നേ വീട്ടിലൊരു ബർത്ത് ഡേ ഫംഗ്ഷനു വേണ്ടിയിട്ട് ഒരു മുന്നൂറ് പേർക്ക് ഭക്ഷണം സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷെ ബർത്ത് ഡേ ഫംഗ്ഷൻ ഒരു പ്രത്യേക കാരണത്താൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പതിനെട്ട് കറികളുള്ള സദ്യയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് തരം പായസവും ഉണ്ടായിരുന്നു ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ടിനായിരുന്നു ഞാൻ പർച്ചേയ്സ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നതുകൊണ്ടു തന്നെ ഞാൻ റീഫണ്ടിന് അപേക്ഷിച്ചിരുന്നു ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഇതിന് അതിനെക്കുറിച്ചുള്ള ഒരു ഒരു അപ്ഡേറ്റും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതിന് എന്താണ് കാരണമെന്ന് ഒരു കാലതാമസത്തിന് കാരണം എന്തെങ്കിലും ഞങ്ങൾക്കൊരു വിവരം ഞങ്ങൾക്ക് മെസ്സേജ് വഴിയോ ഫോൺ കോൾ വഴിയോ ഞങ്ങൾക്ക് അറിയിക്കാൻ താൽപര്യപ്പെടുന്നു